എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഫാൻ ആണ് ഫാനിനെ കുറിച്ച് പറയാൻ ആണെങ്കിൽ ഒരുപാട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ മൂന്ന് തരം ഫാനുകൾ ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം സീലിംഗ് ഫാൻ ഉണ്ട് സീലിംഗ് ഫാനിൻ്റെ മെയിൻ ഉപയോഗം പറഞ്ഞ് കഴിഞ്ഞ നമുക്ക് നല്ല രീതിയിൽ ഉള്ള കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഫാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമുക്ക് സീലിംഗ് ഫാൻ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട് ആയിട്ട് നമ്മൾ മുഖത്തേക്ക് ഒക്കെ കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള ജലദോഷവും കാര്യങ്ങളും അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പനി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സീലിംഗ് ഫാൻ കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഡസ്റ്റ് വല്ലാണ്ട് ഈ ഫാനിൻ്റെ മേലിൽ പൊടി പിടിച്ച് ഇരുന്നിട്ട് നമുക്ക് അത് നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഡസ്റ്റ് പെട്ടെന്ന് പറന്ന് നമ്മുടെ മൂക്കിലേക്ക് ഇരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അത് ഒരു നെഗറ്റീവ് ആണ് ബാക്കി ഉള്ള കാര്യത്തിൽ സീലിംഗ് ഫാൻ അടിപൊളി ആയിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്